അയ്യോ ഞാൻ എൻ്റെ യൂട്ടിലിറ്റി ബിൽ എടുക്കാൻ മറന്നു യൂട്ടിലിറ്റി ബിൽ ഉപയോഗിച്ച് വിലാസത്തിൽ തെളിവ് കാണിക്കേണ്ടതുണ്ട് പക്ഷേ ഞാൻ അത് എടുക്കാൻ മറന്നു എന്തുചെയ്യും ഇനി ഞാൻ വളരെ അധികം ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നെ സാർ സഹായിക്കാമോ ഡിജിലോക്കറിൽ എൻ്റെ യൂട്ടിലിറ്റി ബിൽ എങ്ങനെ തിരിച്ചെടുക്കാം എന്ന് സാറിന് അറിയാമോ എങ്കിൽ അത് വളരെ സഹായകമാവും